ഞാൻ കഴിഞ്ഞ മാസം അതായത് ഫെബ്രുവരി ഒന്നാംതിയാണ് ഒരു സ്റ്റൗവ് ഓർഡറ് ചെയ്തായിരുന്നു ഒരു ഓൺലൈൻ വെബ്സൈറ്റിൽ നിന്നാണ് ഞാനാ സ്റ്റൗവ് ഓർഡർ ചെയ്തത് പക്ഷേ സ്റ്റൗവ് വന്നപ്പോഴത്തേനും ആ പ്രൊഡക്റ്റ് ഞാൻ പ ഓർഡറ് ചെയ്തിരുന്നു പോലെയോ അല്ലെങ്കിൽ ആ ഡിസ് ആ ഒരു വെബ്സൈറ്റിൽ കൊടുത്തിരുന്ന ഡിസ്ക്രിപ്ഷൻ പോലെയേ അല്ല അതിൻ്റെ കളറോം കാര്യങ്ങളും ഒന്നും ആ ഒരു ഷേപ്പ് അതായത് ഞാനൊരു റെക്ടാങ്കിൾ ഷേപ്പാണ് ഞാനതിൽ കണ്ടതും അത് കണ്ടിട്ടാണ് ഞാൻ ഓർഡറ് ചെയ്തതും ഇത് വന്നിട്ട് വന്നതൊരു സ്ക്വ ഒരു സ്ക്വയർ ഷേയ്പ്പും അതുപോലെ നാല് ബേണർ ഒള്ളതാണ് ഞാൻ ഓർഡർ ചെയ്തത് വന്നതാണെങ്കിൽ മൂന്ന് ബേണറൊള്ളത് അതും ഞാൻ ഓർഡറ് ചെയ്ത കളർ ബ്ലൂവായിരുന്നു വന്നതൊരു പിങ്ക് കളറാണ് നമുക്ക് സ്റ്റൗവ് കിട്ടിയത് അത് അത് എൻ എന്ത് മൊത്തോം ഡിഫറൻറ്റാണ് അത് ആ ഒരു പ്രൊഡക്റ്റ് ഞാൻ അതിന്ന് ഓർഡറ് ചെയ്ത പ്രോഡക്റ്റേയല്ല ഇതിപ്പോൾ അത് മാത്രവായിരുന്നെങ്കിൽ കുഴപ്പമില്ലായിരുന്നു ഇത് അതല്ലാണ്ട് വന്നിട്ട് ഇതിൻ്റെ സ്റ്റൗവ് നോബ് വന്നിട്ട് അത് ശരിയല്ല അത് ഒരെണ്ണത്തിൻ്റെ നാല് ബേണറൊള്ളതിൽ രണ്ടെണ്ണതിൻ്റെ നോബും സ്റ്റക്കായി ഇരിക്കുവാണ് പിന്നെ അതിൻ്റെ ക്യാപ്പ് ക്യാപ്പ് ഇളകി വരുന്നുണ്ട് ഒരു ബോണറിൻ്റെ നോബിൻ്റെ ക്യാപ്പ് ഇളകി വരുന്നുണ്ട് അതുപോലെ ഫ്ലെയിം ഫ്ലെയിമാണെങ്കിൽ ഒട്ടുവില്ല ഞാൻ കഴിഞ്ഞ തവണ അതായത് നേരത്തെ ഞാൻ ഈ ബട്ടർ ഫ്ലൈയുടെ തന്നെയാണ് ഓർഡറ് ചെയ്തതും യൂസ് ചെയ്തിരുന്നതും അത് കഴിഞ്ഞ നാലഞ്ച് വർഷവായിട്ട് ഞാൻ ബട്ടർ ഫ്ലൈയുടെ തന്നെയാണ് ഓർഡറ് ചെയ്ത് ചെയ്ത് ഇത്ക്കണക്ക് ഓഡറ് ചെയ്ത് വാങ്ങിച്ചതുവാണ് യൂസ് ചെയ്തത് കൊണ്ടിരുന്നതും അതുതന്നെയാണ് അതിനൊന്നും ഒരു കുഴപ്പവും ഉണ്ടായിരുന്നില്ല കഴിഞ്ഞ ഞാനിത് ഓഡർ ചെയ്യുന്നതിന്ന് ഒരു ഒരു ഒര് മാസം മുന്നെ എങ്ങാണ്ടോ അത് അതിനെന്തോരു ചെറിയ കേടുപാട് വന്നത് കൊണ്ടാണ് ഞാൻ അത് കൊടുത്തിട്ട് ഇത് പുതിയത് ഓർഡറ് ചെയ്തത് പക്ഷേ ഞാൻ പ്രതീക്ഷിച്ച പോലെയല്ല പ്രൊഡക്റ്റ് വന്നത് അത് ഫ്ലെയിം ഒട്ടുമേയില്ല രണ്ട് രണ്ട് ബേണറിലും ഫ്ലെയിമില്ല ബാക്കി രണ്ടെണ്ണത്തിലാണെങ്കിൽ ഇതുപോലെ നോബിൻ്റെ പ്രശ്നം അത് എന്ത് കൊണ്ടാണ് ഇങ്ങനൊരു പ്രോ ഡിസ്ക്രിപ്ഷൻലെക്കെ നല്ല ഇതായിട്ട് കൊടുത്തിട്ട് അതിന്റകത്ത് കൊടുത്തിരിക്കുന്ന റിവ്യൂസും നല്ല റിവ്യൂ ഒക്കെയാണ് കൊടുത്തേക്കുന്നത് ഇവർക്ക് എന്തേലും തെറ്റ് പറ്റിയതാവണം കാരണം കഴിഞ്ഞ തവണ ഞാൻ ഓൺലൈനിന്ന് തന്നെയാണ് ഓഡറ് ചെയ്തത് വേറെ കുഴപ്പമൊന്നും ഉണ്ടായിരുന്നില്ല ഞാൻ ഇത്രയും വർഷം അത് യൂസ് ചെയ്തതാണ് പക്ഷേ ഇതിപ്പം മൊത്തം ആ പ്രൊഡക്റ്റ് വളരെ മോശവായിപ്പോയി പ്രൊഡക്റ്റ് എനിക്ക് കയ്യിൽ കിട്ടിയപ്പഴുത്തോ പ്പഴ്ത്തേനും